എനിക്ക് തോന്നിയിട്ടുള്ള സമകാലീന സംഭവത്തെ കുറിച്ച് പറയുകയാണെങ്കില് ഇപ്പം ഇ അടുത്ത് ഉണ്ടായിട്ടുള്ള പല രീതിയിലുള്ള വാർത്തകളൊക്കെ കാണാറുണ്ട് അതില് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ പണ്ടത്തെ കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എവിടെ വേണമെങ്കിലും പുറത്തിറങ്ങാനുള്ള ഒരു സ്വാതന്ത്ര്യം കാര്യങ്ങളൊക്കെ നമ്മളുടെ പൂർവികർമാരാണെങ്കിലും ഇപ്പം ഗാന്ധിജി അങ്ങനെ മഹാത്മാ ഗാന്ധി അങ്ങനെ പലരും നേടി തന്നിട്ടുണ്ട് പക്ഷെ ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സ്ഥലത്തും ക്യാമറയും കാര്യങ്ങളും ഒക്കെ ആണ് നമ്മളൊന്ന് ബാത്റൂമിൽ പോയാൽ വരെ ക്യാമറയും കാര്യങ്ങളും വെക്കുന്ന ടീമ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇപ്പഴത്തെ കുട്ടികളെപ്പോലും എന്താ പറയുക ചെന്നായ്ക്കള് പിടിച്ച് കടിച്ച് മുറിച്ച് തിന്നുന്ന ഒരു അവസ്ഥ ആണ് ഉള്ളത് അപ്പം അതൊക്കെ ഒന്ന് മാറേണ്ടി ഇരിക്കുന്നു ഒരു ഗൾഫിലെ ഒരു സിസ്റ്റവും കാര്യങ്ങളും ഒക്കെ വരുകയാണെങ്കില് കുറച്ചും കൂടെ നല്ലതായിരിക്കും കാരണം നമ്മളുടെ പെൺകുഞ്ഞുങ്ങള് ഓരോ പെൺ കുഞ്ഞ് ജനിക്കുമ്പോഴും അവരുടെ അച്ഛനും അമ്മെൻ്റെയും ഉള്ളിലും തീയാണ് അത് മാറ്റണം അതായത് ഒരു കുട്ടിക്കും ജീവിതത്തെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട ഒരു കാലഘട്ടങ്ങളൊക്കെ ആകുമ്പോഴേക്കും പിള്ളേര് അതായത് പല ബംഗാളിമാരാണെങ്കിലും ആരാണെങ്കിലും അവരെ നശിപ്പിക്കുക അങ്ങനത്തെ കാര്യങ്ങള് ഒക്കെ ചെയ്യുന്നുണ്ട് അതൊക്കെ എന്താ പറയുക ഒരു വാർത്ത ആയിട്ട് മാത്രമെ കാണുന്നുള്ളൂ അപ്പം അതും മാറേണ്ടിയിരിക്കുന്നു അതാണ് എനിക്ക് പറയാനുള്ളത്